ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിനോദ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ തെന്മലയുണ്ട് ജടായുപ്പാറയുണ്ട് കൊല്ലത്ത് പീച്ചി ഡാം മൺറോതുരുത്ത് സാംറാണിക്കൊടി ആ തീരങ്ങളൊക്കെയുണ്ട് നമുക്ക് ഇവിടെയൊക്കെ എവിടാ താമസിപ്പിക്കണം എന്ന് നമുക്ക് അറിഞ്ഞുകൂട അത് അവിടെ ചെല്ലുമ്പോഴ് അവർ ഡയറക്ട് തെന്മല തെന്മല ഡാമിൽ തന്നെ പോയാൽ തന്നെ അതിന് കുറേ ഏറെ കുട്ടികൾക്ക് പഠിക്കാൻ കളിക്കാനുള്ള പാർക്കുകൾ ഉണ്ട് അതുപോലെ പിന്നെ ഇത് മൃഗങ്ങളെയൊക്കെ മൃഗങ്ങളുണ്ടോ പിന്നെ അതുപോലെ ഒരു നദിയിൽക്കൂടെ നദിയിൽക്കൂടെ ഒരു ബോട്ട് ബോട്ട് യാത്രയുണ്ട് അതിൻ്റെയെല്ലാം അവർ ഹെൽപ് ചെയ്യും ഒരുപാട് ആൾക്കാർ സ്വീകരിക്കുന്നതാണ് ഇവരെ താമസിക്കാൻ അവിടെ താമസ സൗകര്യം ഒരുക്കുമായിരിക്കും അതുപോലെ ആ വനത്തിൽ വനത്തുലൂടെ നടന്നു പോകാം വനത്തിലൂടെ നടന്നു പോകുമ്പഴ് ആ വനത്തിലുള്ള വനത്തിൽ പക്ഷി മൃഗ എല്ലാം ഒക്കെ കയറി ഇരിക്കുന്ന എല്ലാ തരത്തിലുള്ള പക്ഷികൾ മൃഗങ്ങളെയൊക്കെ കാണാം അതുപോലെ പാലരുവിയിൽ പോയാലും അവിടെയും നമുക്ക് അവിടെ അടുത്ത് അടുത്ത് ആയതുകൊണ്ട് അധികം അവിടെ ചെലവാക്കാതെ തന്നെ പോകാൻ സാധിക്കും പാലരുവിയിലൊക്കെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് ഒത്തിരി പിന്നെ അത് അങ്ങനെ വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്നതാണ് അത് കഴിഞ്ഞാൽ ജടായുപ്പാറയിലോട്ട് പോയാൽ അവിടെ പിന്നെ നമുക്കും അവിടെ കൂടുതൽ പൈസ ചെലവാക്കേണ്ടി വരും കേബിൾ കാർ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മുകളിൽ വരും അല്ലാതെ തന്നെ നടന്നൊക്കെ പോകാമായിരിക്കും പക്ഷെ കേബിൾ കാര് ഒക്കെ ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ പിന്നെ അങ്ങനെ പൈസ ചെലവാക്കേണ്ടി വരും പിന്നെ അവിടെയും ആവശ്യമുള്ള ഫുഡ് ഒക്കെ അവിടെ തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അവർക്ക് ഇപ്പം നമുക്ക് നമ്മുടെ ഇതാക്കലൊക്കെ ചെലവ് വരവനുസരിച്ച് ചിലഴിക്കാനായിട്ട് പിന്നെ ഒരു ഹോട്ടലുകളൊക്കെയുണ്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ആഹാരം നമുക്ക് കഴിക്കാം അതുപോലെ പിന്നെ കൃത്യമായിട്ട് കൂട്ടമായിട്ട് വന്നാൽ അവർക്കും ഹോംലിയായിട്ട് എടുക്കാമെങ്കിൽ അങ്ങനെയും പിന്നെ വലിയ ചില ചില ചുരുങ്ങിയ ചെലവിൽ തന്നെ കഴിയാൻ കഴിയാൻ സാധിക്കും എങ്കിലും കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നല്ല സഞ്ചാര കേന്ദ്രമായിട്ട് തന്നെയാണ് കേന്ദ്രം തന്നെയാണ് എല്ലാ ആൾക്കാരെയും ആകർഷിക്കുന്നതാണ് ഇപ്പോൾ കഴിവനുസരിച്ച് ചിലവിൻ്റെ ഇവിടെ നല്ല കാലാവസ്ഥയിൽ വരാമെങ്കിലും അധികം തുക ചിലവാക്കാതെ തന്നെ അവർക്ക് തിരിച്ചു പോകേണ്ടി വരും ട്രെയിൻ യാത്ര ചെയ്യാം അതുപോലെ ബസിലും വരാം വാഹനങ്ങളൊക്കെ എപ്പോഴും ഒരോ സ്ഥലത്തും വാഹനങ്ങളൊക്കെ ഇഷ്ടംപോലെ സ്ഥല സൗകര്യങ്ങളുണ്ട് വേണ്ടുന്ന രീതിയിൽ പ്രയോഗിച്ചാൽ മതി അവരുടെ സാഹചര്യം അനുസരിച്ച് അവർ മുന്നോട്ട് കൊണ്ട് പോകാനായിട്ട് സാധിക്കും പിന്നെ പർച്ചേസ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും ഉണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനും ആരെയും ആകർഷിക്കത്തക്കവണ്ണം വലിയവരെയും കൊച്ചു കുഞ്ഞുങ്ങളെയും പ്രായമുള്ളവരെയും ഫുഡിൻ്റെ അനുസരിച്ചുള്ള ഫുഡുകളൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ അത് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ട് പോകുന്നുണ്ട് എല്ലാവർക്കും പിന്നെ ബീച്ചിൽ പോയാലും തക്ക സമയത്ത് പോയാൽ അവർ മുന്നറിയിപ്പ് അതിൻ്റെ അടുത്ത് പോയാൽ അതിൻ്റെ അടുത്ത് ഇന്നത് ഉണ്ട് അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട് അവിടെയൊക്കെ പിന്നെ കാണാനൊക്കെ സാധിക്കും അതുപോലെ മീൻ പിടിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ സമയാസമയത്ത് പോകാമെങ്കിൽ അതൊക്കെ കാണാൻ സാധിക്കും എല്ലാവരും നല്ലതായിട്ട് സഹകരിക്കും വിദേശികളൊക്കെയും നല്ല രീതിയിൽ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു ജില്ല തന്നെയാണ് കൂടുതൽ ആളുകൾ ഇവിടെയൊക്കെ വരാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും ഓക്കേ